ഹലോ ഞാനേയ് ഒരു ഒരുമാസം മുന്നെ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതെ അതെ അതെ അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തതെങ്ങോട്ടാണെന്ന് വെച്ചു കഴിഞ്ഞാല് തിരുവനന്തപുരത്തേയ്ക്കായിരുന്നു ആപ്പോൾ അതേ ക്യാബ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് അതായത് ആ ഡ്രൈവറും ആ ക്യാബും ആ അതെ അതെ അതെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ വണ്ടി നമ്പർ കെ എൽ സെവൻ ആ എ ഫൈവ് സീറോ ടൂ ആ വണ്ടി ആ ആ വണ്ടിയിലന്ന് പോയത് എന്തോ ഒരു രതീഷ് എന്നോ അങ്ങനെ എന്തോ ആണ് ഡ്രൈവറുടെ പേര് ആ അതെ അതെ അതെ ആ പുള്ളി തന്നെ വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പുള്ളി അടിപൊളി ഡ്രൈവറായിരുന്നു നമ്മളെ നല്ല രീതിയില് സഹായിക്കുകയൊക്കെ ചെയ്തൊരു ഡ്രൈവറായിരുന്നു

ആ അങ്ങനെ കിട്ടുമോയെന്നൊന്നു നോക്കിയിട്ട് ഒന്നു വിളിക്കുമോ പെട്ടെന്ന് വിളിക്കുമോ ഓക്കേ എന്നാല്